കുക്കിങ് ഒരാളെ ജീവിതത്തിൽ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് കുക്കിങ് കൊണ്ട് ചെ കുറെ ആൾക്കാർ കുറെ രീതിയിലുള്ള കുക്കിങ് ചെയ്യുന്നുണ്ട് ചിലവർക്ക് ചില കുക്കിങ് ചിലവർക്ക് വെജ് ടൈപ്പ് കുക്കിങാണിഷ്ട്ടം ചിലവർക്ക് നോൺ വെജ് ടൈപ്പ് കുക്കിങാനിഷ്ട്ടം ചിലവർക്ക് ചോറ് അടുപ്പിലാണ് ആക്കുന്ന ഇഷ്ട്ടം ചിലവർക്ക് ചോറ് പുറത്താണ് ആക്കുന്നത് ഇഷ്ട്ടം പൊതുവെ പുറത്ത് അടുപ്പിലാക്കിയ ചോറും കറിയാണ് ഭയങ്കര സ്വാദും രുചികരവുമായിട്ടുള്ളത് ഉള്ളിലാക്കിയ ചോറും കറിയും അത്ര സ്വാദും രുചികരവുമായിട്ടുള്ള പണ്ടത്തെ ആൾകാർക്കല്ലെ സൂക്കേട് വരത്തില്ല കാരണം എല്ലാ ചോറ് കറി എല്ലാ ആക്കുന്നത് പുറത്താന്ന് അത്കൊണ്ട് ആൾക്കാർക്ക് സൂക്കേടും കുറവാന്ന് ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനല്ല ഇപ്പോഴത്തെ ആൾക്കാരെ എല്ലാ പെട്ടന്നാണ് അവരെല്ലാം ഗ്യാസിൽ ചെയ്യുന്നത് അത്കൊണ്ടാണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് കുക്കിങും കുറെ ഭയങ്കര ഭാരമായ കാര്യാന്ന് പണ്ടൊക്കെ പണ്ടത്തെ ആൾക്കാർക്കെല്ലാം കുക്കിംഗ് ഭയങ്കര നിസാരമായ കാര്യാന്ന്ഞ്ഞ അടുപ്പിലാക്കിയ ചോറും കറിയുൻ്റെ ആ ടേസ്റ്റ് കിട്ടലില്ല ഗ്യാസിലാക്കിയാൽ ഗ്യാസിലാക്കിയാൽ കിട്ടും ഇപ്പംന്ന് പറഞ്ഞാൽ ആരും ഇപ്പോഴത്തെ ആൾക്കാർ പ്രിഫറൻസ് ആ ആരു അടുപ്പിലത്തെ ചോറും കറിയും കൊടുക്കലില്ല പണ്ടത്തെ ആൾക്കാർ അങ്ങനല്ല പണ്ടത്തെ ആൾക്കാരെല്ലാം അടുപ്പിലാക്കിയ ചോറും കറിയും തന്നെ അത്ര ടേസ്റ്റ് ഇപ്പോഴത്തെ ആൾക്കാർക്കെല്ലാം അത് പുകമണം ബെരുന്ന് രുചിയില്ല ഇത് എന്താ അമ്മ ഇങ്ങനാക്കിയത് എന്തോ സ്മെല്ല് വരുന്നെന്നല്ലെ പറയുന്നെ അത്കൊണ്ട് കുക്കിങ്ന്ന് പറയുന്നത് ഇപ്പം എല്ലാ റൈസ് കുക്കറ്ണ്ട് മിക്സിയ്ണ്ട് ഗ്രൈൻഡറ്ണ്ട് അപ്പം എല്ലാം നമ്മൾ അതിലിട്ടിന് നമുക്ക് വേണ്ട്ന്ന പണി പുറത്തിലത്ത പണിയെല്ലാം നമുക്ക് ചെയ്യാം അതിലന്നെ നിന്നിട്ട് മെനക്കെട്ടിറ്റ് ചെയ്യണംന്നില്ല പണ്ട് അങ്ങനെയല്ല പണ്ട് എല്ലാ അമ്മിക്കല്ലും ഉപയോഗിക്കണം പിന്നെ അമ്മ ഇത് റെ അടുപ്പ് റൈസ് കുക്കർ ഒന്നുമില്ല അടുപ്പിലെന്നെ ചട്ടി ചൂടേറ്റ്മ്പ വെള്ളം ചൂടാറ്റ്മ്പ അമ്മ ചോറിടണം എല്ലാം അടുപ്പിലന്നെ ചോറും കറിയും ദോശ എല്ലാം ചുടുന്നതും അടുപ്പിലന്നെ ഇപ്പം അങ്ങനല്ല ഇപ്പം എല്ലാം മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചോറും കറിയും എല്ലാം ഉണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ട്ടം അടുപ്പിലാക്കിയ ചോറും കറിയും ആന്ന് കാരണം അടുപ്പിലാക്കിയ ചോറും കറിക്ക് ഭയങ്കര ടേസ്റ്റും പണ്ടത്തെ കോഴിക്കറി നമ്മൾ അജ്ജിമാറെല്ലാക്കുന്ന കോഴിക്കറി എല്ലാം ഭയങ്കര ടേസ്റ്റ് ഉണ്ടാന്ന് അവർ അടുപ്പെലാക്കുന്നതല്ലെ പുകമണം ഒന്നും ബന്നു അത് ഭയങ്കര ടേസ്റ്റാന്ന് അന്ത്